പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്ത് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ നാസ പുറത്ത് വിട്ട ചില വസ്തുക്കളിൽ നിന്നും നമുക്ക് അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ ഉണ്ട് ഉണ്ട് എന്നത് കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ അളവ് അവിടെ ഉണ്ടെന്ന് ഇനി വരുന്ന ചില ആയിരം വർഷങ്ങൾക്ക് ഉള്ളിൽ എപ്പോഴെങ്കിലും ചില ഓരോ ചൊവ്വയിലും അങ്ങനത്തെ ചില ഗ്രഹങ്ങളിൽ ഒക്കെ വെള്ളം വരുന്നതായി അവരുടെ പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ വാ സ്വ വളരെ വലുതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലുതാണ് അപ്പോൾ ഇതിൽ എവിടെങ്കിലും ഒരു ജീവൻ ഉണ്ടെന്ന് എന്നാണ് വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയാണ് ഞാൻ നമ്മളുടെ നാസ പുറത്ത് വിട്ട ചില കുറെ വസ്തുക്കളിൽ നിന്ന് നമുക്ക് അവിടെ ജീവൻ ഉണ്ടെന്നും ഈ വരുന്ന എപ്പോഴെങ്കിലും കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും അവിടെ ഒരു ജീവന് സാധ്യത ഉണ്ട് എന്നതും പിന്നെ നമ്മൾ കേട്ട് പഴകിയ ഒരു വസ്തുവാണ് ഏലിയൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തികളിൽ ഒന്നാണ് ഞാന്